വിനോദസഞ്ചാരം മെച്ചപ്പെടുത്താൻ വേണ്ടി നമ്മുടെ നാട്ടിൽ റിസർവോയറ് ബോട്ട് സർവീസ് നടത്താൻ ഉള്ള സൗകര്യം ഉണ്ട് അതിന് വേണ്ടി സർക്കാർ പഞ്ചായത്തിനെയോ അല്ലെങ്കിൽ അതിന് പ്രത്യേകം ഏജൻസിടെയോ ഏൽപ്പിക്കേണ്ടതാണ് ഏൽപ്പിക്കാൻ ശ്രമിക്കാം അത് പഞ്ചായത്തിന് നല്ലൊരു വരുമാന മാർഗ്ഗമായിരിക്കും പിന്നെ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലമായതിനാൽ റിസോട്ട്കളും പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിലുളള റിസോട്ട്കൾ നിർമ്മിക്കാൻ സാധിക്കും പൊതുവെ ഈ പ്രദേശം വിനോദ സഞ്ചാരത്തിന് അനുകൂലമായ ഒരു സ്ഥലമാണ് നല്ല ഹരിത ഭംഗിയാർന്ന സ്ഥലമാണ് പിന്നെ റോഡ്കൾ കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം

ഗതാഗത സൗകര്യം മെച്ചപ്പെടുത്താൻവേണ്ടി ഉള്ള ശ്രമവും ഉണ്ടാകണം റിസെർവെയറിലൂടെ റോട്ടിൽ സഞ്ചരിച്ചാൽ നല്ല പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളുണ്ട് നമ്മുടെ ചിന്നയ്യാർ ഡാം ഉത്ഭവിക്കുന്ന സ്ഥലമായ നെയ്യാറ് കൊമ്പേ മീൻമുട്ടി അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം വിനോദ സഞ്ചാരത്തിന് പറ്റിയ സ്ഥലങ്ങളാണ് ഇവിടെയെല്ലാം ഫോറസ്റ്റിൻ്റെ കൂടി സഹകരണത്തോടെ വിദേശികൾ ഉൾപ്പെടെ ഉള്ളവരെ കൊണ്ടുപോവാൻ സാധിക്കും

വനത്തിലൂടെ ഉള്ള ട്രക്കിംങ് അതും വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് പിന്നെ ജലഗതാഗതം വേണമെങ്കിൽ നടത്താവുന്നതാണ് ഇവിടെനിന്നും നെയ്യാർ ഡാമിലേക്കും തിരിച്ചും ഉള്ള ജലഗതാഗത നടത്താൻ വേണ്ടി ബോട്ട്കൾ പഞ്ചായത്ത് മുഖാന്തരം ഏർപ്പാടാകെ ഏർപ്പാടാക്കിയാൽ വളരെ നന്നായിരിക്കും പിന്നെ നമ്മളുടെ വിനോദസഞ്ചാരത്തെക്കുറിച്ച് റോപ്പ് വേ പോലുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടം